പ്രധാ നെയ്ത്തിനും തുന്നലിനും ഒക്കെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഒന്ന് എന്റെ കയ്യിലുള്ളത് ഒരു ഊ ഉഷയുടെ മെഷിൻ ആണ് നല്ല മെഷിൻ ആണ് പിന്നെ രണ്ടാമത് നമുക്കൊരു എംബ്രോയഡറി മെഷിന് ഉഷ അത് തന്നെ പിന്നെ നമ്മുടെ കൈയിൽ നൂൽ വിവിധങ്ങളായ പേ ലോക്ക് മെഷിന് അതു കൊണ്ട് പിന്നെ നമുക്ക് വിവിധങ്ങളായ നൂലുകൾ പിന്നെ ഓരോന്നിനും മാച്ച് ചെയ്യുന്ന നൂല് നൂല്പ്പെട്ടി അത് ബള്ക്ക് ആയിട്ടന്നാ ഒരു മൊത്തത്തോടെ ഒരു നൂല്പ്പെട്ടി പിന്നെ അതിന് വേണ്ടുന്ന എല്ലാ അഡീഷന്സ് പാട്ട്സ്കളാണ് അതായത് ബോമന് കേയ്സൊക്കെ രണ്ട് പിന്നെ നൂൽ കൂടുതൽ മെന ഇടാന് വരെ സൂചിയുള്ള ഒടിഞ്ഞു പോകുമ്പം നമ്മുടെ സമയം പോകാതിരിക്കാൻ വേണ്ടി അതിന് ഒരു സെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തുന്നൽ എന്റെ ഇതിലാണെങ്കിൽ ഈ കമ്പിളി കൊണ്ടുള്ള വസ്ത്രങ്ങൾ നെയ്യുന്നതിന് ക്രോഷ് ഇതിന്റെ സൂചി വലിയ ക്രോഷോ കമ്പി അത് ഓടുമ്പം മേടിക്കും പിന്നെ അതിനുള്ള പൈ കമ്പിളി നൂലുകൾ കിട്ടും ഈ ഒരു ബണ്ടിലായിട്ട് വിവിധ കളറുകളുടെ നൂലുകൾ മേടിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള ഈ ഫ്രെയിംവര്ക്ക് നെയ്തിന് അകത്തിട്ട് ചെയ്യാനുള്ള ഫ്രെയിമുകൾ മേടിക്കും പിന്നെ ഇപ്പം മിഷനറികൾ എല്ലാം മോട്ടറ് വച്ചുള്ള മിഷനുകളുണ്ട് അങ്ങനത്തെയുള്ള മിഷനുകൾ നമുക്ക് ചവിട്ടുന്നത് തന്നെയല്ലാതെ അപ്പോൾ ലോക്ക് മെ ഇത് ലോക്ക് ചെയ്യാന് തുന്നുന്ന വസ്ത്രങ്ങള് ലോക്ക് ചെയ്യാൻ പിന്നെ അതിൽ നൊ പൂക്കള് നെയ്യാൻ അതിനുള്ള ഫ്രെയിമ് അതിനുള്ള കല്ല് നല്ലോണം എംബ്രോയഡറി മിഷന് പിന്നെ ഈ പേപ്പറുകൾ ഡിസൈന് ചെയ്യാൻ ഓയില് പേപ്പറുകൾ ഡിസൈന് ചെയ്യാൻ പിന്നെ നല്ല നല്ല കണ്ട് നോക്കി ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസൈനുകൾ അതിന്റെ മാഗസിനുകൾ ഇങ്ങനെ ഉള്ളവയൊക്കെ മേടിച്ച് മെച്ചപ്പെട്ട കൂടുതൽ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് വേണ്ടുന്നത് മിഷന് എത്രയും പണിക്കുറ്റമില്ല മിഷന് നല്ലത് ഏറ്റവും നല്ലത് നല്ല ഇനം മിഷന് അതുപോലെ തന്നെ ആര്ക്കും ഒരു ഇടര്ച്ച ഉണ്ടാകാത്ത ഒരു മോശം പറയാത്ത നല്ല നല്ല നൂലുകൾ പിന്നെ നല്ല നല്ല ഡിസൈനുകളെ കുറിച്ച് പിന്നെ വയ്ക്കാന് പറ്റുന്ന സീക്കെന്സ് മെറ്റീരിയല്സ് ഇങ്ങനെയുള്ളവയൊക്കെ എല്ലാം മേടിക്കാം കൂടുതലായിട്ട് ഓക്കെ